ആ ഇത് ഇടുക്കി ആ ഇത് സൂപ്പർ മാർക്കറ്റാണ് ആ സൂപ്പർ മാർക്കറ്റ് ആണ് അതെ ആ ആ

വില ചക്കയ്ക്ക് എൺപത് രൂപ ആണ് പെർ കിലോ ഇപ്പം ഇല്ലാത്ത സീസൺ ആയതുകൊണ്ടാണ് എൺപത് രൂപ വില പിന്നെ ഏത്ത ഏത്തക്കായ്ക്ക് നാടൻ കായ്ക്കും അറുപത് രൂപയും വരവ് കായക്ക് അൻപത് രൂപയും ഏത്തപ്പഴം ഇല്ല പിന്നെ ഏതാ മാങ്ങ മാങ്ങയ്ക്ക് മാങ്ങയ്ക്ക് പിന്നെ കിലോ അൻപത് രൂപയാണ് പിന്നെ പഴം പഴം പഴം പറഞ്ഞായിരുന്നു ഏത്തപ്പഴം പറഞ്ഞല്ലോ ആ അങ്ങനെ ഒക്കെയാണ് വിലകൾ ഇത് എന്ത് മാത്രം വേണ്ടതാണ് എങ്ങനെയാണ് കല്യാണം ആവശ്യം അങ്ങനെ വല്ലതും ആണോ ഇന്ന് ഇന്നലെ ഇത്ര പിന്നെ ഇത് തന്നെയാണ് വില മെനിഞ്ഞാന്ന് ഇച്ചിരി മാറ്റം ഉണ്ടായിരുന്നു ആ മെനിഞ്ഞാന്ന് ആ ഇരുപത് ഒക്കെ കുറവ് ഉണ്ടായിരുന്നു ഏത്തപ്പഴത്തിന് മെനിഞ്ഞാന്ന് അമ്പത്തി അഞ്ചേ ഉണ്ടായിരുന്നുള്ളു നാടൻ നാളത്തേയ്ക്ക് കുറയാൻ എന്ന് പറഞ്ഞാൽ നാളെ തിങ്കളാഴ്ച ദിവസം ആകുമ്പോൾ കുറയുകില്ല ഈ നിരക്ക് തന്നെ ആകാനാണ് സാധ്യത ഈ ഇടയ്ക്ക് ഉള്ള ദിവസം ബുധൻ ചൊവ്വ ബുധൻ വ്യാഴം ഒക്കെ ചിലപ്പോൾ കുറയും വെള്ളി ശനി ഞായർ കൂടും അങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റ് ഒക്കെ കൂടുന്നത് ആ എന്നാൽ ഇതിൽ ഇട ദിവസം ആകുമ്പോൾ പിന്നെ ചിലവ് കുറവ് ഉണ്ട് ഹോളിഡേ ദിവസം കൂട്ടീട്ട് ഈ രണ്ട് കിലോ എടുക്കുമ്പോഴത്തേന് ഒരു പത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയേ വരുകയുള്ളു

നല്ല സാധനങ്ങളാണ് നല്ല സാധനങ്ങളാണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ആ ഇന്ന് വരുന്ന സാധനം ഇന്ന് ഇവിടെ വിൽക്കുകയുള്ളു നാളത്തേയ്ക്ക് ഉള്ള സാധനം ഇന്ന് എടുത്ത് ആ ഇന്ന് വന്നിട്ട് വിൽക്കുകയില്ല അത് എന്തെന്നാൽ ഡാമേജ് ആയിട്ട് മാറ്റുകയാണ് വൈകിട്ട് ഇന്ന് വരുന്ന സാധനം ഇന്ന് രാവിലെ വരുന്ന സാധനം ആണ് ഇന്ന് വിൽക്കുന്നത് ഞങ്ങളുടെ പ്രത്യേകത അതൊക്കെയാണ് ആ ആ അപ്പോൾ എപ്പോഴെന്നാൽ വന്നാൽ മതി സാറ്

ശരി ഓക്കെ